നടക്കുന്ന കാര്യങ്ങളാണ് ഇത് ഇതുവഴി നമുക്ക് അവരുമായി സു ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാനും നല്ലൊരു

സ്പെഷ്യലൈസ് ചെയ്ത വണ്ടികളുടെ പേരിൽ കുറേ ഗ്രൂപ്പുകൾ ഉണ്ട് അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ അവരിൽ നിന്നും മനസ്സിലാക്കാനും നേടാനും സാധിക്കും